എല്ലാ മേഖലയിലും അഴിമതികൾ ഉള്ളത് തന്നെയാണ് അത് പ്രത്യേകമായി ആരോഗ്യമേഖല അല്ലെങ്കില് കച്ചവട മേഖല അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒന്നും പറയാനില്ല കാരണം എല്ലാ മേഖലയിലും മനുഷ്യരുടെ സ സഹവാസവും മനുഷ്യരുടെ ഇടപെടലുമുള്ള എല്ലാ മേഖലയിലും അഴിമതികള് തീർച്ചയാണ് അപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയില് പറയുകയാണെങ്കില് അതിലൊക്കെ അഴിമതികള് കൊണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ് ആരോഗ്യവും മേഖലയില് അങ്ങനെ അഴിമതികള് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് മനുഷ്യരുടെ ജീവന് തന്നെ ഭീഷണി ആകുന്ന കാര്യങ്ങളാണ് അതായത് വേ ഒരു ആള് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഇൻ്റെർണൽ ഓർഗൻസിന് ഡാമേജ്ഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് അവര് പെട്ടന്ന് തന്നെ പറയുന്നത് ഓപ്പറേഷനാണ് ചിലപ്പോൾ വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമായിരിക്കാം അവിടെ ചെല്ലുന്നത് അപ്പം അവര് ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഓപ്പറേഷന് തയ്യാറാകും അവര് നല്ല രീതിലുള്ള എമൗണ്ടും ചോദിക്കും അപ്പോൾ ഈ ഈ തരത്തിലുള്ള അഴിമതികളെല്ലാം ഇക്കാലത്ത് നിലനിൽക്കുന്നൊണ്ട് അതുപോലെ തന്നെ മരുന്നിലായിക്കോട്ടെ ഈ എന്തായാലും ആരോഗ്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായത് കൊണ്ട് തന്നെ നമ്മളതിന് കോംപ്രമൈസിന് തയ്യാറാവില്ല എന്താണ് ചോദിക്കുന്നത് അത് കൊടുക്കും അപ്പം അവിടെക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഈ അഴിമതി ആ മേഖലയിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷ്യ ഭക്ഷണത്തിൻ്റെ മേഖലയിൽ നിലനിൽക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കില് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്